ആ മന്ന റെസ്റ്റോറൻ്റ് അല്ലേ ഞാനേ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നെ അവിടെ നിന്ന് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ല അതിന് മോശമായിട്ടുള്ള അഭിപ്രായം അല്ല അല്ല അല്ല അതു പറയാൻ അല്ല അപ്പം ഞാനെങ്ങനെയാണെന്ന് വച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓഫീസിലെ ആവശ്യങ്ങൾക്ക് ഞാനിപ്പോൾ ഓഫീസിലെ ആവശ്യങ്ങൾക്കായിട്ട് വന്നതായിരുന്നു ഇവിടെ കോഴിക്കോട് ആ അതെ അതെ അപ്പോൾ ഞാൻ അപ്പോൾ അവിടെ നിന്ന് കഴിച്ചു എന്നുള്ളൊരു നമ്മൾക്ക് ഇതിൻ്റൊരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് കിട്ടണമല്ലോ അപ്പോൾ അതിൻ്റെ രസീത് അതായത് നമ്മളതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തു നിന്ന് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ അതെ അതെ ഞാനേ മിനിഞ്ഞാന്നാണ് കഴിച്ചത് അപ്പം അതിൻ്റെ എന്തെങ്കിലും രസീതോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ അടുത്തു നിന്ന് കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പം ഞാനവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തുതരാൻ വേണ്ടി സാധിക്കുമോ നിങ്ങളുടെ ആപ്പിലൊന്നു നോക്കിയിട്ട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആപ്പോ അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ ഓക്കെ ആ ഉണ്ട് അല്ലേ ആ അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറയുമോ ആ ഓക്കെ ഓക്കെ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ആ ആ ശരി ശരി ആ അങ്ങനെയാണെങ്കിൽ ഞാനവിടെ വരാം വന്നു കഴിഞ്ഞിട്ട് നിങ്ങളൊന്നത് എടുത്തു തരികയാണെങ്കിൽ വളരെ അധികം ഉപകാരമായിരുന്നു കാരണം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്തായാലും കമ്പനിയിൽ നിന്ന് കിട്ടണമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഓക്കെ ഓക്കെ എന്നാൽ ഞാനെന്നാൽ വന്ന് മേടിക്കാം ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങളെനിക്ക് വാട്സപ്പ് ചെയ്താലും മതി ഓക്കെ ഓക്കെ ചെയ്തു തന്നേര് ഓക്കെ ഓക്കെ